ഹലോ തിരക്കാണോ അത് ഈ വയനാട്ടിൽ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഒക്കെ ഒന്ന് പറഞ്ഞെരുവോ വയനാട്ടിൽ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ

രണ്ടും നോക്കണം ആ ആ അതെ ഉസ്തേക്കൻ

റിസോർട്ട് ഒക്കെ ഉണ്ടോ ഞങ്ങൾ നാലാൾ ഫോറസ്റ്റിൽ ഉണ്ടോ

ഓക്കെ അപ്പോൾ നോക്കിയിട്ട് വിളിക്കാം